കേരളത്തിന്റെ കലയും കരകൗശല് ഇത് കരകൗശല്യ പാരമ്പര്യവും നമ്മള് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇതായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങള് നമ്മള് മോഹിനിയാട്ടം കളരിപ്പയറ്റ് പുലിക്കളി എന്നുള്ള പല കലാരൂപങ്ങളും കേരളത്തിൽ നിന്ന് പിറവി കൊണ്ട പല കലാരൂപങ്ങളും ഉണ്ട് അത് നമ്മുടെ സാംസ്കാരികതയേയും നമ്മുടെ ഒരു സമൂഹത്തിന്റെ മൂല്യത്തിനേയും വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളുവാണ് അത്പോലെ കഥകളിയായാലും കേരളത്തിന്റെ അതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പല കലാരൂപങ്ങളും ഉണ്ട് ഓട്ടം തുള്ളൽ കഥകളി ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക മൂല്യത്തിനെ ലോക ലോകത്തിന് മുന്നില് ക ഉയര്ത്തി കാണിക്കുന്ന പല കാര്യങ്ങളുവാണ് പിന്നെ അത്പോലെതന്നെ കരകൗശല ഇത് നോക്കുവാണെങ്കിൽ ആ ഒരു മേഖല നോക്കുവാണെങ്കിൽ പായാ അത്പോലെ നമുക്ക് ആറന്മുള കണ്ണാടി തന്നെ നമുക്ക് ഒരെ ഒരു എക്സാമ്പിളായിട്ട് വെയ്ക്കാം ആറന്മുള കണ്ണാടി അവിടുത്തെ ആള്ക്കാര് അവിടുത്തെ ചെളിയില് നിന്ന് മാത്രവൊണ്ടാക്കിയെട്ക്കാമ്പറ്റ്ന്ന ഒരു കാര്യമാണ് ആറന്മുള കണ്ണാടി അതൊക്കെ നമ്മുടെ ഒരു കേരളത്തിനെ ഒരൂ ലോകത്തിന്റെ മുന്നിൽ തന്നെ ഈ റെപ്രസന്റെ ചെയ്യുന്ന ഒര് കാര്യവാണ് എന്നാണ് എൻറ്റൊരു നിഗമനം അല്ല എൻറ്റൊരഭിപ്രായം ഓക്കെ അപ്പം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പായ കൈതോലപ്പായ എന്ന് പറയുന്നത് നമ്മുടെ ആലുവ കോ ആലുവ ആലുവ തൃശ്ശൂര് ആ ഒരു ബോർഡർ ഏര്യയില് ഏറ്റവും കൂടുതൽ ആള്ക്കാര് ടെ ഉപജീവനമാര്ഗവാണ് കൈതോലപ്പായ അപ്പോൾ അതൊക്കെ നമ്മുടെ കരകൗശല മേഘലയിലെ കുറെ നല്ല കാര്യങ്ങളായിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരം ത്തിന്റെ സ്വന്തം ബാലരാമപുരം കൈത്തറി ബാലരാമപുരം കൈത്തറി എന്ന് പറയുന്നത് ഹാന്ലൂമിന്റെ അല്ലെങ്കിൽ കരകൗശല മേഖലയിലെ ഈ നമ്മളുടെ ഇന്ത്യയുടെ ന മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് സ്മോള് മീഡിയം ആ ഒരു മിനിസ്ട്രി ഓഫ് സ്മോള് സ്കേയ്ൽ ഇൻ്റസ്ട്രീസില് ഏറ്റവും കൂടുതൽ അവര് പ്രമോട്ട് ചെയ്യുന്ന ഒര് കാര്യവാണ് ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങള് അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുമ്പം കേരളത്തിന്റെ കലയും കരകൗശല കരകൗശല മേഖലയും ഭയങ്കരവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു